നമ്മുടെ സംസ്ഥാനം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളുണ്ട് ആ ഇരുപത്തൊമ്പതിൽ നിന്നു ഭിന്നമായി വളരെ വ്യത്യസ്തതയേറിയ ഒരു നാടാണ് കേരളം വളരെ കൊച്ച് കൊച്ച് ഇതാണ് വളരെ നല്ലതും അതിമനോഹരവുമായി ഏതൊരു പുറത്തുള്ള വ്യക്തിയേയും ഏതൊരു അതായത് വിദേശിയേയും ആകർഷിക്കുന്ന ഒരു സംസ്കാരം ഫുഡ് ആയിക്കോട്ടെ അവിടുത്തെ അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ അവരുടെ വസ്ത്രരീതി ആയിക്കോട്ടെ അവരുടെ സംസാരം ആയിക്കോട്ടെ വളരെ വ്യത്യസ്തതയേറിയതാണ് കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കായലുകളാളും കടലിനും സമുദ്രത്താലും ചുറ്റപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായ സ്ഥലം അമ്പലങ്ങളും അതായത് എന്താ പറയുക അതിമനോഹരമാണ് എല്ലാംകൊണ്ടും വളരെ സുന്ദരമായി എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു നല്ല ഇത് എന്തൊരു പ്രശ്നം വന്നാലും ഓടിവരുന്ന ആൾക്കാരുകൾ പിന്നെ വളരെ മഹത്ത്വമേറിയ വിശേഷപ്പെട്ട ടെമ്പിളുകളുള്ള നാട് ഉദാഹരണം പറയാമല്ലോ നമുക്ക് തിരുവനന്തപുരം എടുത്തു നോക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കോടിക്കണക്കിനു സ്വത്തിൻ്റെ ഒരു സ്വത്തുള്ള ഒരു അമ്പലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തശയ്യയിൽ ശയിക്കുന്ന മഹാവിഷ്ണു ആണവിടുത്തെ പ്രതിഷ്ഠ അതേപോലെത്തന്നെ നമുക്ക് ഇവിടെ തൃശ്ശൂരിലേക്ക് വന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി അമ്പലങ്ങളുണ്ട് കാഴ്ചകളുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഗുരുവായൂരമ്പലം അതേപോലെത്തന്നെ വടക്കുന്നാഥക്ഷേത്രം വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് അതിമനോഹരമായ സ്ഥലമാണ് അതേപോലെത്തന്നെ ആലപ്പുഴ അവിടെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ കായൽ ഫുഡിനാൽ പ്രസിദ്ധമായ സ്ഥലമാണ് ആലപ്പുഴ നമ്മടെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സംസ്ഥാനം പല സവിശേഷതകൾ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളുള്ള ജീവിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരും ജീവിക്കുന്ന ഒരിന്ന ഇത് അതൊക്കെകൊണ്ട് എനിക്ക് കേരളം വളരെ സവിശേഷമാണ് വളരെ സ്പെഷ്യൽ ആണ്